ഏറ്റവും നല്ല ബാങ്ക് എന്നു വച്ചാൽ കാനറാ ബാങ്ക് ഉണ്ട് പഞ്ചാബ് ബാങ്ക് ഉണ്ട് കെ എഫ് സി ബാങ്ക് ഉണ്ട് ഏറ്റവും നല്ലതെന്നു വച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്നത് കാനറാ ബാങ്കാണ് സെയ്ഫ്റ്റിയിലും എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നത് അതേപോലെ തന്നെ പഞ്ചാബും അത്ര നല്ലതാണ് എന്തെന്നു വച്ചാൽ അവടെനിന്ന് ഉള്ള ബാങ്ക് നല്ല ബാങ്കുകളാണ് പഞ്ചാബ് ബാങ്കും എല്ലാ ബാങ്കും നല്ലതാണ് നമുക്ക് ധൈര്യത്തിൽ ക്യാഷും എന്തും ഇടുകയും ചെയ്യാം എന്തും പറയുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് നല്ല ബാങ്കാണ് കാനറയാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് ഏറ്റവും നല്ല ബാങ്കേ കാനറ ബാങ്കായിട്ടാണ് എല്ലാവരും പറയുന്നത് പഞ്ചാബും അത്ര നല്ല ബാങ്കൊക്കെ തന്നെയാണ്